ഏതൊരു കൃഷി കൃഷിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അവൻ ഇറക്കുന്ന കൃഷി കൊയ്യാൻ സമയാവുകയും അത് വളരെ വിജയകരമായി കൊയ്ത്തും അതിനെ ഒരു കാർഷിക കമ്പോളത്തിലെത്തിച്ച് അതിനു വിൽപന നടത്തുന്നത്